ഞാനൊരു ഓൺലൈനായിട്ട് ഒരു ഹെഡ്ഫോൺ കണ്ടായിരുന്നു അപ്പോള് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു എന്നുവച്ചാല് നല്ല അടിപൊളി ഒരു ഫോണായിരുന്നു കണ്ടിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ റിവ്യൂസൊക്കെ ചെക്കീതു അപ്പോള് അതിലെല്ലാവരും പോസിറ്റീവ് കമെന്റാണ് ഇട്ടേക്കണത് പോസിറ്റീവ് കമെന്റ് എല്ലാവരും സൂപ്പറാണ് നല്ല ഫോണാണ് പിന്നെ അത്യാവശ്യം റേറ്റ് കുറവുമാണ് അപ്പോള് കുറവെന്നുവച്ചാല് സാധാ റേറ്റുണ്ട് പക്ഷെ നമ്മള് മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച് കുറച്ചു കുറവാണ് അതിന് അതിൻ്റെ എല്ലാം ന്യൂസില് എല്ലാം ചെക്കിയ്തപ്പഴും അതിൻ്റെ എല്ലാ കാരണങ്ങളും എല്ലാം നോക്കിയപ്പോഴൊക്കെ അടിപൊളിയൊരു ഫോണെന്ന് നമുക്ക് എങ്ങനെയായാലും ക്യാഷ് ഓൺ ഡെലിവറി നടത്തിയിട്ടാണു ഞാന് ഓർഡർ ചെയ്തത് ഗൂഗിൾ പേയ്മെന്റ് കൊടുത്തു പേയ്മെന്റ് പൊതുവേ ഞാൻ കൊടുത്തില്ല ഡെലിവർ അങ്ങനെ കൊടുത്താല് ക്യാഷ് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കില് നമ്മള് കയ്യില് കിട്ടിയിട്ട് ക്യാഷ് കൊടുത്താല് മതി അവര് ധൈര്യത്തിലാണ് മറ്റേ പേയ്മെന്റ് നമ്മള് ഗൂഗിൾ പേ പേയ്മെൻറ് ചെയ്താല് നമ്മള് പിന്നെ എന്താണെന്നുവച്ചാല് അത് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോള് ഞാന് നമുക്ക് എന്തെങ്കിലും അർജന്റൊഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തില് മാത്രമാണു ഞാന് ജി പേ അങ്ങനെ പേയ്മെൻറ് ചെയ്യല് അധികവും ക്യാഷ് ഓൺ ഡെലിവറി നടത്തിയിട്ടാണു ഞാൻ ചെയ്യല് പിന്നെ പക്ഷെ ആ ഫോണ് കണ്ടപ്പോള് എനിക്കു നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി ഫോണായിരുന്നു അങ്ങനെ ഞാനതും ഓർഡര് ചെയ്തു പക്ഷെ അതിൻ്റെ റിവ്യൂസൊക്കെത്തന്നെ ആരും അതിന് നെഗറ്റീവ് കമെന്റ് ഇട്ടിട്ടില്ല എല്ലാവരും അതിന് പോസിറ്റീവ് കമെന്റാണ് ഇട്ടിട്ടുള്ളത് പിന്നെയതു വേറെ ഫോണൊക്കെ ഞാൻ വേറെ ഹെഡ്ഫോണുകള് നോക്കി പക്ഷെ അതിലൊക്കെ സൂപ്പറായ ഫോണിതാണ് പക്ഷെ അത്ര തന്നെ ക്യാഷില്ല എന്നാലും സാധാരണക്കാർക്ക് ഉപയോഗിക്കാന് കൊടുക്കാൻ പറ്റിയ ക്യാഷ് കൂടുതലായിട്ടില്ല എന്നാണു കെട്ടോ ഉദ്ദേശിച്ചത് എന്നാലും കുഴപ്പമില്ല പക്ഷെ ഫോണ് കണ്ടപ്പോള് നല്ല ആഗ്രഹം അത്രയും അടിപൊളിയായിരുന്നു ആ ഫോണ് അങ്ങനെ ഞാന് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ കൊടുത്തിട്ടാണു പേയ്മെൻറ് ചെയ്തത് പിന്നെ വേഗം നല്ല പ്രൊഡക്റ്റാണ് പിന്നെ അതുപയോഗിച്ച ആൾക്കാര് വ്യക്തികളും പറഞ്ഞു നല്ല പ്രൊഡക്റ്റാണ് കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി അങ്ങനെയൊക്കെ എല്ലാവരും പറയുകയും ചെയ്തു പക്ഷെ ഞാന് അന്നു നമുക്കു താങ്ങാവുന്നൊരു പൈസ ക്യാഷേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വലിയ കുഴപ്പമില്ല ഏതായാലും അത് ഓർഡര് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് അതിനു പറ്റിയ എല്ലാം ചാർജര് ഒക്കെ അതില് നല്ല എം ബി കൂടുതല് ഉപയോഗിക്കാനുള്ള എല്ലാം നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടുതാനും അതിനു നല്ല അടിപൊളി ഫോണായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്